പട്ടണത്തിലെ ആരോഗ്യസൗകര്യങ്ങളെ വെച്ചത് കംപെയർ ചെയ്യുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ആരോഗ്യ സൗകര്യങ്ങള് വളരെയധികം പരിമിതമാണ് ഇവിടെ ജോലി ചെയ്യാനായിട്ടുള്ള സന്നദ്ധത ഉള്ള ഡോക്ടര്മാരും കുറവാണ് ആരോഗ്യ സേവനങ്ങള് ഉള് ആരോഗ്യ സേവനങ്ങള് എന്തെങ്കിലും രോഗങ്ങൾ വന്ന് കഴിഞ്ഞാലും എമര്ജന്സി കണ്ടീഷന്സിനൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവര്ക്ക് പട്ടണത്തിലെ ഹോസ്പിറ്റലുകളെ ആണ് ആശ്രയിക്കേണ്ടി വരുന്നത് കാരണം അവിടെയാണ് ഫെസിലിറ്റികൾ കൂടുതൽ ഉള്ളത് ലാബ് സൗകര്യങ്ങളും ആംബുലന്സിന്റെ അവൈലബിളിറ്റിയും കിടത്തി ഐ പി ക് സൗകര്യങ്ങളും ഒക്കെ കൂടുതൽ ഗവണ് പട്ടണങ്ങളിലെ ഹോസ്പ്പിറ്റലുകളിൽ ആണ്

ഇന്ഫ്രാസ്ട്രക്ചർ വളരെയധികം ലോ ആണ് ഗ്രാമപ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്വെസ്റ്റിഗേഷന്സ് ഡയഗ്നോസ്